ഞാന് ഒര് യാത്ര പോകണമെന്ന് ആരെങ്കിലും പറയുമ്പോൾ തന്നെ ഞാനാഗ്രഹിക്കുന്നത് കടൽ കടലുള്ള കടൽ തീരമുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകണമെന്നാണ് കാരണം കുഞ്ഞിലെ മുതലെ ഏറ്റവും ഞാനിഷ്ടപ്പെടുന്ന ഒര് കാര്യവാണ് കടൽത്തീരം കടല് എന്നൊക്കെ പറയുന്നത് കാര്യവെന്താണെന്ന് വെച്ചാൽ ഞാൻ കോട്ടയം ജില്ലയിലാണ് ജനിച്ചതും വളർന്നതുവൊക്കെ ഇവിടെ കടലില്ല അതിനാൽ തന്നെ ഈ ടീവിയിലും ഫോണിലും ഒക്കെ കണ്ടത് മാത്രെ എനിക്കനുഭവം ഉണ്ടായിരുന്നുള്ളു പിന്നെ ചെറുപ്പത്തിൽ ഞാൻ ആഗ്രഹിച്ചെങ്കിലും കടല് കാണാനൊന്നും പറ്റിയില്ല ഒരു അത്യാവശ്യം വലുതായതിൽ പിന്നെയാണ് കടൽത്തീരത്ത് പോവുന്നതും പിന്നെ അതങ്ങ് വലിയിഷ്ടമായി തീരുവയും ചെയ്തു പിന്നെ മറ്റൊര് കാര്യമെന്ന് പറയുന്നത് ക്ഷേത്രം ക്ഷേത്രം ക്ഷേത്രങ്ങളിൽ പോവുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ് ഏ ഞാനേറ്റവും ആഗ്രഹിക്കുന്ന മറ്റൊര് സ്ഥലമെന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രവാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്നെങ്കിലും പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട് ഒരു ദിവസം പോവുക തന്നെ ചെയ്യും